ആ ഹലോ ആ അതെലോ ഇതാരായിരുന്നു ആ ഓക്കെ ആ മാം

ആ ഓക്കെ ഓക്കെ മാം മാം ഞങ്ങളിവിടെ നോണും നോൺ വെജ്ജും കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നോൺ വെജ്ജാണ് പിന്നെ ഇവിടെ സദ്യ ആണ് സദ്യയും മെയിൻ ഐറ്റം തന്നെയാണ് പത്ത് പതിമൂന്ന് കൂട്ടം കറിയും ചോറും രണ്ട് കൂട്ടം പായസമാണ് ഇവിടെ വരുന്നത് വെജ്ജില് പിന്നെ നോൺ വെജ്ജിൽ എന്ന് പറയുമ്പോൾ ഇവിടത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ അൽഫം മന്തി പിന്നെ പിന്നെ എന്ന് പറയുന്നത് പിടിയും നാടൻ കോഴി കറിയും ആണ് അത് കേരളത്തിൻ്റെ സ്പെഷ്യൽ ഫുഡാണ് ഇത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് അരി വറുത്ത് പൊടിച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വേവിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണിത് നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വരുന്നൊരു ഫുഡാണിത് അതിൻ്റെകൂടെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് നല്ല നാടൻ ആ മാം ഇവിടെ സ്റ്റേയുമുണ്ട് ഹോട്ടൽ റൂംസുണ്ട് അതുപോലെ നമ്മുടെ റെസ്റ്റോറൻറ്റും അവൈലബിളാണ് മാമിന് എപ്പോഴാണ് വെണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മളന്നത്തേക്ക് ബുക്ക് ചെയ്ത് തരുന്നതാണ് എത്ര പേരുണ്ടാകും മാം ആ ഓക്കെ ഓക്കെ അമ്പത് പേർക്കുള്ള റൂംസ് മാം പറയുമ്പോൾ ഞങ്ങള് ബുക്ക് ചെയ്ത് തരാം ആ ഇതുവരെ ഇപ്പോൾ ബുക്കിങ്ങൊന്നുമല്ല മാം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്ററായിരിക്കും പിന്നത്തേക്ക് പെട്ടെന്ന് ആൾക്കാര് വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കൊടുക്കണ്ട ആവശ്യം വരും മാമിന് ഫുഡ് ഏതാണ് വേണ്ടത് ആ ഓക്കെ മാം പിടിക്ക് ചിക്കൻ കറിയാണൊ അതോ വേറെ ഏതേലും മീറ്റ് ഐറ്റംസ് എടുക്കണോ ആ ഓക്കെ സദ്യക്ക് കറികളെന്തൊക്കെയാണ് വേണ്ടത് എന്ന് മാം ലിസ്റ്റ് സ്പെഷ്യലായിട്ട് എന്തേലും കറികള് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്താൽ മതി ഞങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കി തരുന്നതാണ്

ഇവിടെ പെർ ഡേ അയ്യായിരം രൂപയാണ് വരുന്നത് ഒരു റൂമിന് നിങ്ങൾ ഈ അമ്പത് പേരുള്ള സ്ഥിതിക്ക് ഒരൂ പത്ത് റൂമെങ്കിലും വേണ്ടി വരില്ലേ അതിനനുസരിച്ച് വരും പിന്നെ ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ചെറിയ ഡിസ്കൗണ്ടൊക്കെ വരുന്നതാണ് ആ ആ ഓക്കെ മാം പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്ററായിരിക്കും കാരണം പെട്ടന്ന് ഇപ്പോൾ എമർജൻസി ആയിട്ട് ആരേലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂം അലോവ്ഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അധികം ലേറ്റ് ആകാണ്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഓക്കെ മാം ഓക്കെ